ഹലോ അതെ ഞാനെ ഒരു കസ്റ്റമർ ആണേ ആ പിന്നെ എനിക്ക് എൻ്റെ മോൾക്ക് മോൾക്ക് വേണ്ടിയിട്ടാണേ അവിടെ പിന്നെ ഹെയർ വെട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഏതെല്ലാം രീതിയിലുള്ള ഹെയറുണ്ട് ഹെയർ കട്ടിംഗ് ഉണ്ട് ആ മോൾ അൽപ്പം വെളുത്തിട്ടാണേ അപ്പം നീണ്ട മുഖമാണ് മോളുടെ അപ്പോൾ ആ മോൾക്ക് ചേരുന്നത് ഏതാണ് ഉള്ളതനുസരിച്ച് പിന്നെ ബോയ്സ് കട്ടോ ബിന്നെ അല്ലേ ലയർ വെട്ടാനോ ഏതാ ഏതൊക്കെയാണ് അവിടെ ഉള്ളത് അത് ഏതാണെന്ന് പറഞ്ഞ് തരാമോ ആ മാമിൻ്റെ പേരെന്താ അപ്പോൾ ഫേഷ്യല് ഫേഷ്യലും ഫേഷ്യലും ചെയ്യുമോ ഫേഷ്യൽ ത്രെഡ് അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം റേറ്റ് ഒഒക്കെ എങ്ങനെയാണ് ആ അപ്പോൾ

സ്മൂത്ത് ചെയ്യും സ്മൂത്ത് ചെയ്യും ആ അത് പിന്നെ ഫേഷ്യലും അങ്ങനെ ഉള്ള കാര്യങ്ങളും അത് എല്ലാം ഉണ്ട് അം ആ ത്രെഡിഗും എല്ലാം സ്ട്രെയ്റ്റ് ചെയ്യുമല്ലോ സ്ട്രെയിറ്റ് ചെയ്യും ആ മാം മോൾ നല്ല വെളുത്തിട്ടാണ് അപ്പം റേറ്റ് എങ്ങനെയാണ് റേറ്റ് ആ മുടിയുടെ നീളം അനുസരിച്ചാണ് ലെയർ ആണെങ്കിലും അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം വരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ

റേറ്റ് റേറ്റ്ൻ്റെ അനുസരിച്ചാണ് ഞങ്ങൾ വരാനിരിക്കുന്നത് വേറെ നല്ല ബൂട്ടി പാർലറൊ ഒക്കെ ഉണ്ട് എന്ത് എന്ത് എന്ത് ഇതാണെങ്കിലും നല്ലവണ്ണം നല്ല വർക്ക് ആണല്ലോ അല്ലേ നല്ലവണ്ണം ചെയ്ത് തരുമല്ലോ ആ ഓക്കെ മാഡം എങ്കിൽ ഞങ്ങൾ വന്നേക്കാം ഓക്കെ